ഞങ്ങളുടെ വീട്ടിലാകെ പത്ത് സെൻറ്റാണ് ഉള്ളത് ആ ഒരു പത്ത് സെൻറില് കുറച്ച് ഭാഗത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്നവരാണ് അപ്പം കൃഷി എന്ന് പറയുമ്പോൾ വലിയ നെൽപ്പാടങ്ങൾ അങ്ങനെ ഉള്ള അല്ല പയർ പാവൽ അതുപോലെ വെണ്ടയ്ക്ക പച്ചമുളക് ഉണ്ടമുളക് കരിയാപ്പ് ചീര ഇങ്ങനെയൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നവരാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണ് ആ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണോ എന്ന് നമ്മൾ നോക്കണം നമ്മൾ എത്രയൊക്കെ കൃഷി ചെയ്താലും എന്താ ആ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നാലും ആ മണ്ണ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ മണ്ണ് നല്ലതാണോ എന്നുള്ളത് കൃഷിയുടെ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തെ മണ്ണ് നല്ല കിളച്ച് നല്ല പാകപ്പെടുത്തിയിട്ടിട്ട് നമ്മളെന്താണോ അവിടെ എന്താ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ ആ നമ്മൾ നല്ല രീതിക്ക് അതിനെ ഇപ്പം വാഴയായിക്കോട്ടെ അത് അതിൻ്റെ രീതിയിൽ നടുക അപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യം തീർന്നു എന്നല്ല അതിനെ പരിപാലിക്കണം അതായത് വാഴയാണെങ്കിൽ അതിന് വേണ്ട വളവും വെള്ളവും പിന്നെ അതിന് ചുറ്റും മണ്ണ് ഇങ്ങനെ ചുവട്ടിൽ മണ്ണ് നല്ല രീതിയിൽ ഇട്ടു കൊടുക്കുകയും പിന്നെ ചാണകപ്പൊടി പിന്നെ അതിൻ്റെ അതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതിൽ ചെല്ലി കുത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം പിന്നെ മുളക് പയർ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ പയറാണെങ്കിൽ നമ്മളിപ്പം നട്ട് കഴിഞ്ഞാൽ ഒരു വിത്തിട്ട് മണ്ണ് നിറച്ചൊരു വിത്തിട്ട് പാവിയിട്ട് പാവി വെക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് മുള പൊന്തും മുള പൊന്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പിരിച്ച് നടണം പിരിച്ച് നട്ടു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നമ്മൾ ഓരോ കമ്പ് ഊന്നിക്കൊടുക്കണം കമ്പ് ഊന്നിക്കൊടുത്ത് അതിന് പടരാനുള്ളൊരു സൗകര്യം നമ്മൾ ഒപ്പിച്ച് കൊടുക്കണം അത് ചീര ആയാലും നമ്മൾ അരി പാവുമ്പോഴത്തേക്ക് അകലം പാലിച്ചിട്ട് വേണം നമ്മൾ പാവിക്കൊടുക്കാൻ അതിൽതന്നെ അതിൻ്റെ വിത്ത് കുറച്ച് മഞ്ഞപ്പൊടിയുംകൂടെ താളിച്ചിട്ട് നമ്മൾ പാവി കഴിഞ്ഞാൽ ആ വിത്തിനകത്ത് ഉറുമ്പ് കയറി നശിച്ച് പോകാതെ നമുക്ക് ചീര പാവി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതിനും വേണ്ട വെള്ളവും വളവും നമ്മളെന്നും അതിൻ്റെ ചുവട്ടിൽ പോയി അതിനെ സംരക്ഷിക്കണം പിന്നെ അതുപോലെത്തന്നെ പാവലും ഇതേപോലെ വിത്ത് പാവുക അത് ഒന്ന് പടർന്ന് വരുമ്പഴത്തേക്ക് അതിന് വേണ്ട കമ്പ് ഉന്തിക്കൊടുത്ത് അതിനെ പടർത്തി വിടുക അതുകൊണ്ട് തന്നെ വെറ്റ വെറ്റ നമ്മൾ നടുമ്പോഴത്തേക്ക് വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വേണം നടാൻ അതിൽ വൃത്തിഹീനമായിട്ടുള്ള വെള്ളം ആയിക്കോട്ടെ ഒന്നും തന്നെ ഈ വെറ്റ നടുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടിടാൻ പാടില്ല അത് നല്ല വൃത്തിയോടും ശുദ്ധിയോടും ചെയ്യേണ്ട കാര്യമാണ് അപ്പം ആദ്യം തന്നെ വെട്ടി പടർത്തിയിട്ട് അവിടെ നമ്മൾ ഈ കവുങ്ങിൻ്റെയൊക്കെ കമ്പ് വച്ച് ഒരു മതിൽ പോലെ മതിൽ പോലെത്തന്നെ വെയിൽ പോലെ കെട്ടിയിട്ട് അതിനെ പടർത്തി വിട്ട് കൊടുക്കുക അപ്പം ഓരോ പ്രാവശ്യം വളമെടുക്കുന്നതിനനുസരിച്ച് അതിന് അതിനകത്ത് പന്ന ഈ ഇല ഇത് കുത്താതെയും അതിൻ്റെ ചോട്ടിൽ മണ്ണില്ലാതെയും ഒന്നും പോവാതെ നമ്മളതിനെ പരിപാലിക്കണം മണ്ണ് വേണ്ട സമയത്ത് മണ്ണ് ഇട്ട് കൊടുക്കണം വെള്ളം വേണ്ട സമയത്ത് വെള്ളം കൊടുക്കണം അതുപോലെ അതിനെ പടന്ന് പോവാനുള്ള എല്ലാ കമ്പുകളും നമ്മൾ നാട്ടി കൊടുക്കുക തന്നെ ചെയ്യണം